ഹലോ പറഞ്ഞോളി അതെ അതെ അത് ഫർണീച്ചർ കടയണ് ഏതാ നോക്കുന്നത് നിങ്ങൾ ആ ആ അപ്പോൾ ഇവിടെ കട്ടിൽ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ളൊരു കട്ടിൽ ഉണ്ട് കട്ടിൽ വാതിൽ ജനൽ കസേര ടാബ്ള് ഒക്കെ ഉണ്ട് ഏതാ നിങ്ങൾ നോക്കുന്നത് ഇതിപ്പോൾ തേക്ക് നല്ല വുഡാണ് തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത് മാത്തം കട്ടിൽ കട്ടിലാണെങ്കിലും നല്ല ഹൈ പെർഫെക്ഷനായിട്ടുണ്ടാക്കിയ സധനമാ നല്ല കോളിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് ഇത് കട്ടിൽ ജനൽ ജനൽ വാതിൽ ആ ആ ഓക്കെ ഓക്കെ അതൊക്കെ സെറ്റാണ് പക്ഷെ പ്രീമിയം ആവുമ്പോൾ കുറച്ച് എക്സ്പെൻസാണ് കുറച്ച് വില കൂടും കുറച്ച് വില കൂടുതലാണ് ആ ആ പ്രീമിയ ആണെന്നുണ്ടെങ്കിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല ബഡ്ജറ്റ് വരിക അപ്പോൾ കട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയാണെന്നുണ്ടെങ്കിൽ പതിനെട്ടായിരം രൂപ പിന്നെ അതുപോലെ കസാരെൻ്റെ ഒരു സെറ്റാണ് അതിൽ നാലെണ്ണം ഉണ്ടാവും അപ്പം അതിനൊരു എട്ടായിരം ഉറുപ്പ്യക്ക് ഉണ്ട് പിന്നെ അതുപോലെ ജനൽ വാതിൽ ആ ഓക്കെ അത് ആ അതെ അതെ ആ പാക്കേജ് പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിൽ കട്ടിലിൻ്റെയൊപ്പം നമ്മൾ ബെഡ് ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ബെഡ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കമ്പനി ഹൈ ക്വാളിറ്റി കമ്പനിയാണ് അപ്പോൾ നല്ല അ അതിനോട് കൂടി നല്ല തലയിണ രണ്ട് തലയിണ വിരിപ്പ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ബാക്കിയൊക്കെ അവർ നമ്മൾ ഒരു റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള ടേബിള് അതൊക്കെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഉൾക്കൊള്ളുമ്പോൾ ഓഫറിൽ കുറച്ച് വില കുറയും അപ്പോൾ നിങ്ങൾ എവിടെയാണ് സ്ഥലം ആ ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങോട്ട് വേണമെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി ഉണ്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രീ ഡെലിവറി ഉണ്ട് ആ നമ്മൾ ഇപ്പോൾ കൊച്ചി മട്ടാഞ്ചേരി ആ അതെ അതെ അതെ അതെ അപ്പോൾ ആ ഫ്രീ ഡെലിവറി ഉണ്ടാവും നിങ്ങളൊന്ന് ഒന്ന് ഷോപ്പിലേക്ക് വന്നാൽമതി ഫർണിച്ചറ് അപ്പം നിങ്ങൾക്ക് വേണ്ടിയത് എടുക്കാം അതിൽനിന്ന് ഉം ബെഡ് മാത്രം ആവുമ്പോൾ ബെഡിൽ തന്നെ പല ആ ബെഡ്ഡും പില്ലോ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പല റൈറ്റിലുള്ള സാധനം ഉണ്ട് ഹൈ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് വരുന്നത് ഇതൊരു ഒമ്പത് ഉർപ്പ്യ വരുന്നുണ്ട് രണ്ടുംപാടിയും പില്ലോ ബെഡ് ആ അതെ അതെ ആ ഏത് ആ നല്ല നല്ല നല്ല പഞ്ഞിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെ ബോഡിക്ക് യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഊരക്കോ ഊരവേദന അങ്ങനെത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ അതെ അതെ ആ അതെ ഓക്കെ ഓ ഒക്കെ ഫ്രീ ഡെലിവറി അതിൻ്റെ അതിലും കൂടിയ ഇനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി എട്ട് ഉർപ്യ വരുന്നത്

അതെ അതെ മ് ആ ഓക്കെ അപ്പം എന്നാൽ ഏതായാലും നിങ്ങൾ ഷോപ്പ്ക്ക് വരീ ഓക്കെ ഓക്കെ താങ്ക് യൂ വിളിച്ചതിന് താങ്ക് യൂ ഓക്കെ ഓക്കെ അതെ അതെ അതെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ